കേരളത്തിലെ ആളുകൾ കൂടുതലായിട്ടും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം തന്നെയാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഒരുപാടാളുകളുണ്ടാകും നമുക്കവിടെ തൃശ്ശൂർ നിൽക്കാൻ പോലും പറ്റില്ല അതുപോലെ ആൾക്കാരായിരിക്കും ഒരുപാട് ആനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരുപാട് വലിയൊരു ഉത്സവമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം തന്നെയായിരിക്കും ഒരുപക്ഷേ തൃശ്ശൂർ പൂരം അപ്പോൾ അവിടെയാണ് കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു ഇതാണ് അപ്പോൾ അതു തന്നെയാണ് നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവിടെ പോക ണം അത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് ഏറ്റവും വലിയൊരിത് പിന്നെ കേരളത്തിൽ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഗേൾസൊന്നും അധികം ഇംപോർട്ടൻസ് കൊടുക്കുന്നില്ല പക്ഷേ ബോയ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രക്കിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇംപോർട്ടൻസ് കൊടുക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അതിൻറ്റേതായ ഒരു ഇതുണ്ടാകും അപ്പോൾ അവർക്ക് ട്രക്കിങ്ങിനു പോകണം അല്ലെങ്കിൽ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരിക്കും അങ്ങനെ ഇതൊക്കെയുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗ്രാമങ്ങളൊക്കെയുണ്ട് അതായത് ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ പുറത്തുള്ളവർക്കൊന്നും ഇങ്ങനെ ഗ്രാമം കാര്യങ്ങളൊന്നും കാണാത്തവരായിരിക്കും അപ്പം അവർക്കൊക്കിങ്ങനെ ഗ്രാമം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ കേരളത്തിൽ വന്ന് അതൊക്കെ നോക്കി കണ്ട് പോകാറൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെയുണ്ട് അതുപോലെതന്നെ കേരളത്തിലൊരുപാട് ഉത്സവങ്ങൾ തന്നെയുണ്ട് ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർപൂരം അതുപോലെതന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെതന്നെ അപ്പോൾ ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ